അതേയല്ലോ ആരായിരുന്നു വിളിക്കുന്നത് ആ ആ എന്നായിരുന്നു അലീനേ ആ ആ ഓക്കേ ഇല്ലെടാ എനിക്ക് സമയം കിട്ടിയില്ല ഒത്തിരി തയ്ക്കാനുണ്ടായിരുന്നെ ആ വേണോ ആ ഞാനേ ഞാൻ തുണിയുടെ അളവൊന്ന് എടുത്ത് നോക്കിയില്ല ഞാനൊന്ന് നോക്കട്ടെ ഞാൻ പിന്നെ അതെയോ ആ ഓക്കേ നീ എല്ലാം മാറ്റി മാറ്റി പറയുവാണോ പെണ്ണേ ഞാൻ വീട്ടിൽ തയ്ക്കാത്ത സാഹചര്യം ആ നേരത്തെ വെട്ടി തയ്ക്കാതിരുന്നത് ഭാഗ്യം അല്ലെങ്കിൽ നിൻ്റെ ഡിസൈന് ഒക്കെ പണ്ടേ പാളിപ്പോയേനെ എടീ പിന്നെ മോളിൽ പടി വേണോ അതോ ഇലാസ്റ്റിക്ക് ആണോ ഇടേണ്ടിയത് ആ ലൂസ് കോട്ട് ആവുമ്പോൾ കയറ്റാൻ എളുപ്പം ഉണ്ടല്ലോ അതാ നല്ലത് ആ നീ ഒന്നുകൂടെ വരാമോ നീ ആശുപത്രി പോകാൻ വരുമ്പോഴേ ആ വഴിക്ക് വരുമ്പം കടയിലൊന്ന് കയറിയാൽ മതി ഞാൻ അളവ് എടുത്തോളാം നീ എപ്പോഴാണ് ഇറങ്ങി വരുന്നത് ആ ഞാൻ അത് കുഴപ്പം ഇല്ല ഞാൻ ഏഴ് മണി വരെയൊക്കെ ഇരിക്കാറുണ്ടേ ആ ആ ആ കഴുത്ത് വി നെക്ക് അല്ലേ ആ സ്ക്വയർ ഓ സോറി ആ ഓക്കേ ഓക്കേ കഴുത്ത് സ്ക്വയറ് പിന്നെ കൈ ചെറുത് ഞായറാഴ്ച വേണോ എടി ഞാൻ എടീ ഞായറാഴ്ചത്തേക്ക് കിട്ടുമോ എന്ന് സംശയമാടി എനിക്കാണെങ്കിൽ ഒത്തിരി തയ്ക്കാനുണ്ട് നീ കറക്റ്റ് സമയത്ത് കൊണ്ടുതന്നിട്ട് ഞായറാഴ്ച വേണമെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ ചെയ്ത് തരാനാണ് എൻ്റെ പൊന്ന് പെണ്ണേ ഞാൻ മടുത്തു കേട്ടോ ആ ഉണ്ടെടി അവിടുന്ന് ഇവിടുന്നൊക്കെ തയ്ക്കാനായിട്ട് ഇപ്പോൾ എല്ലാവരും തയ്ച്ചുകിട്ടുന്നവരൊക്കെ പറയുന്നുണ്ട് നല്ല മോഡലാ ഫാഷനാ എന്നൊക്കെ അപ്പം ഇച്ചിരി ആ അത് കാരണം എല്ലാവരും കൂടി ഇങ്ങോട്ട് കൊണ്ട് വരുവാ ഞാൻ ഒരാളെയുംകൂടെ നിർത്തേണ്ട ആവശ്യം ഉണ്ടോ എന്നിങ്ങനെ ആലോചിച്ച് കൊണ്ടിരിക്കുകയാ കാരണം തന്നെ തയ്ച്ചിട്ട് തീരുന്നില്ല അതെ അതെയോ ഓ അവർക്കും കൂടെ കൊട് ഹിന്ദിക്കാർ വരെ തയ്ക്കാനോ അതെയോ ആ എന്നാൽ നോക്കട്ടെ നിനക്ക് ഞായറാഴ്ച തിങ്കളാഴ്ചത്തേക്ക് വേണമല്ലേ കല്യാണത്തിന് പോകാനാണോടീ ഓക്കേ പിന്നെ ഒത്തിരി മോഡലും ഫാഷനക്കെ വയ്ക്കുമ്പം ഇച്ചിരി റേയ്റ്റ് കൂടുതലാട്ടോടാ ആ ഒരു ആയിരത്തി ആയിരം രൂപ നീയായത് കാരണം ഞാനായിരം രൂപയേ വാങ്ങിക്കുന്നുള്ളൂ

ഞാനിച്ചിരി സ്വാർത്ഥയാ മ്മ് യ്യോ ആഹ് അതേറ്റു ആഹ് രണ്ടര മീറ്റർ വേണം കൈക്ക് ലൈനിങ് വെയ്ക്കുന്നുണ്ടോ പിന്നെ എനിക്കാണോ നിർബന്ധം എന്നാൽ ഞാൻ വെച്ചേക്കാം ആ അങ്ങനെയാണെ രണ്ട് മീറ്റർ മതി ഇനി ലൈനിങ് വെക്കണമെങ്കിൽ നീ പറയണം കാരണം തുണി വാങ്ങിക്കണം ഞാൻ പോയി മുന്നാറിൽ പോയി ആണെങ്കിലും തുണിയെടുത്ത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാം മുത്ത് വല്ലം പിടിപ്പിക്കണോ മുത്ത് വല്ലം പിടിക്ക മുത്ത് വല്ലം പിടിപ്പിക്കണോ ആഹ് ഫാഷൻ കൂടുന്തോറും കാശും കൂടും ഉം ഉം നീയാണോടി ആ ഓക്കേ എന്നാൽ നീ ആശുപത്രി പോയിട്ട് അഞ്ച് മണിയാകുമ്പോഴത്തേക്കും പോര് ഞാൻ കടയിൽ കാണും ഏതായാലും ആ ഒക്കെ ശരി എന്നാൽ ആ